അതായത് അറിയപ്പെടാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ വിദേശികളെ ആകർഷിക്കാൻ വേണ്ടി സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാരണം എന്താ പറയുക സോഷ്യൽ മീഡിയ അതായത് സമൂഹ മാധ്യമങ്ങൾ വഴി ഈ സ്ഥലങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുക മികച്ച പേക്കേജുകൾ കൊണ്ടു വരിക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുപോലെ തന്നെ നമ്മുടെ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്നു പറയുന്നത് കൊല്ലങ്കോടാണ് ഇത് കൊല്ലങ്കോട് എന്ന് പറയുന്ന ഗ്രാമം ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ്